നമ്മളുടെ സമൂഹത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നമ്മുടെ സംസ്കാരങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നു ചോദിച്ചാൽ ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഞാനൊക്കെ എനിക്കിപ്പോൾ നാൽപ്പത്തൊമ്പത് വസ്സായി ഞാൻ പഠിച്ച ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമല്ല ഇപ്പോൾ നിലവിൽ ഇപ്പോഴുള്ള വിദ്യാഭ്യാസമ്പ്രദായം അപ്പോൾ അന്നത്തെ സംസ്കാരവും ഇന്നത്തെ സംസ്കാരവും ഒരുപാട് മാറ്റങ്ങൾ വന്നുപോയിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസത്തെ സ്വാധീനിക്കുന്നത് എന്നു പറയുമ്പോൾ സംസ്കാരവും സമൂഹവും തമ്മിൽ വളരെയേറെ ഇടപഴകി പോകുന്നതാണ് നമ്മുടെ സംസ്കാരങ്ങൾ പലപ്പോഴും നമ്മുടെ കുട്ടികളില് ചെലുത്തുന്ന സ്വാധീനം അതായത് ഒരു കുഞ്ഞായിരിക്കുമ്പോൾ അവനു കുടുംബത്തിൽനിന്നു കിട്ടുന്ന അവൻ്റെ സ്വാധീനമാണ് അവനു ഭാവിയിലെ എന്തായിത്തീരണമെന്ന് ചെയ്യുന്ന പ്രധാന ഘടകമായി മാറുന്നത് എന്നു പറഞ്ഞതുപോലെ തന്നെ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ സ്വാധീനിക്കുന്നത് അവൻ്റെ സമൂഹം അവൻ്റെ ചുറ്റുപാടുമുള്ള സംസ്കാരങ്ങളാണ് ആ സംസ്കാരങ്ങളിൽ അടിയുറച്ചൊരു വിശ്വാസം വളർത്തിയെടുക്കാനവനു സാധിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ വിദ്യാഭ്യാസം ഏറെക്കുറെ പൂർത്തിയായി എന്നു പറയാൻ സാധിക്കും ഈ സംസ്കാരങ്ങളെന്നു നമ്മള് സത്യത്തിൽ ഉദ്ദേശിക്കുന്നതെന്താണ് നമ്മൾ നമ്മളായി ജീവിക്കാൻ നമ്മൾ മറ്റുള്ള നമ്മുടെ സമൂഹ ജീവികളോടു പുലർത്തേണ്ടതായ രീതികളും അവരോടു കടപ്പാടുകളും നമ്മൾ നമ്മളിൽ തന്നെ ഒതുങ്ങിത്തീരാതെ നമ്മുടെ ജീവിതവും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശക്തിയും നമ്മുടെ കഴിവുകളും സമൂഹത്തിനുവേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ഉപയോഗപ്രദമായി തീർക്കേണ്ട ഒരു സാഹചര്യം വാർത്തെടുക്കാവുന്ന ഒരു സ്ഥലമാണ് കലാലയങ്ങള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് അവിടെ വളർന്നു നമ്മുടെ സമൂഹത്തിലേക്കു വരുമ്പോൾ അവിടുന്ന് ഒരു ഇന്ന ഒരു സ്കൂളിൽ നിന്നു പഠിച്ചിറങ്ങിയ കുട്ടിയാണ് അവൻ അവൻ സമൂഹത്തിൽ ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്നു മനസ്സിലാക്കാന് സാധിക്കുമ്പോള് മറ്റുള്ളവർക്കുവേണ്ടി നമ്മൾ ജീവിക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ സമയവും മറ്റുള്ളവർക്കുവേണ്ടി ചെലവഴിക്കാന് സാധിക്കുമ്പോൾ അവ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിത്തീരുന്നു നമ്മുടെ സംസ്കാരം തന്നെ അതാണ് നമ്മൾ നമ്മളിലേക്കു തന്നെ നമ്മുടേതായ ആവശ്യങ്ങളിലേക്കു മാത്രം ഇഴുകിച്ചേരാതെ നമ്മുടെ ആവശ്യങ്ങൾ മറ്റുള്ളവൻ്റെ ആവശ്യങ്ങളാണെന്നും അതു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും അവൻ്റെ സ്വാധീനങ്ങൾക്കും അവൻ്റെ അഭിവൃദ്ധിക്കും ആവശ്യമാണെന്ന ഒരു ബോധ്യത്തോടുകൂടി കുട്ടികൾ വളർന്നുവരുന്നുണ്ടെങ്കിൽ അതു സംസ്കാരത്തെ അവൻ വളർന്നുവന്ന സംസ്കാരത്തെ നല്ല രീതിയിൽ സ്വാധീനം ചെലത്തുന്നു എന്നു പറയാൻ സാധിക്കും ഈ സംസ്കാരങ്ങൾ ശരിക്കും ഉണ്ടാകുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് ഈ കുടുംബങ്ങളിൽ നിന്നുണ്ടാകുന്ന സംസ്കാരം ഈ മാതാപിതാക്കളിൽ നിന്നാണു കുട്ടികളിലേക്ക് നൽകപ്പെടുന്നത് അതിനു ശേഷം അത് അധ്യാപകരിൽ നിന്നും അവൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും അവനു ലഭിക്കുന്ന കൂട്ടുകാരിൽ നിന്നും അവൻ്റെ സാഹചര്യങ്ങളിൽനിന്നും ആ സംസ്കാരം അവനില് വളരുകയാണ് അത് വളർന്നാണ് അവൻ ഒരു സമൂഹജീവിയായി സമൂഹത്തിലേക്ക് ഇറങ്ങിവരുന്നതോടുകൂടി അവനും ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിത്തീരുകയാണ് ഒരു നല്ലൊരു സംസ്കാരത്തെ വാർത്തെടുക്കുവാൻ നല്ല ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ആവശ്യമാണ്